പിന്നെ ഇൻ്റർനെറ്റ് വന്നതോടുകൂടി നമ്മുടെ ഭാഷയിൽ നമ്മളുടെ കൾച്ചർ എല്ലാം എന്തെല്ലാം എല്ലാ കാര്യത്തിലും വളരെ നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ ഭാഷയെ ബാധിക്കുന്നത് ഇപ്പം നമ്മൾ സാ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഒരു ആളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ ടൈമിൽ നമ്മളിപ്പോൾ ഇൻ്റർനെറ്റ് വഴിയാണ് കമ്മ്യൂണിക്കേറ്റ് പണ്ട് അങ്ങനെ അല്ലെനു പണ്ട് എല്ലാവരും നേരിട്ട് വന്നിട്ട് ആയിന്നു ഒരു എന്തു കാര്യം ഫങ്ക്ഷൻ ആയി കഴിഞ്ഞാലും എന്തു കാര്യോണ്ടെങ്കിലും നേരിട്ട് വന്നിട്ടാണ് സംസാരിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ ഇപ്പോൾ ഇൻ്റർനെറ്റ് വളർന്നതോടെ വളർന്നതോടുകൂടി എന്ത് ഇപ്പം എല്ലാവരും ഇൻ്റർനെറ്റിലൂടെയാണ് ആശയവിനിമങ്ങളക്കെ ചെയ്യുന്നത് അതായത് വാട്സാപ്പ് ഇൻസ്റ്റാ ഫേസ്ബുക്ക് അങ്ങനെയുള്ള മീഡിയാസിലൂടെയാണ് ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പിന്നെ അതുകൊണ്ട് ഒരു വിഷമം എന്നു പറയുന്ന നമ്മളെ മാതൃഭാഷയെ വളരെയധികം ഇത് ബാധിച്ചിട്ടുണ്ട് കാരണം നമ്മുടെ മലയാളം മലയാളത്തിൽ ആരും ഇപ്പോൾ സംസാരിക്കുന്നത് കുറവാണ് ഇൻ്റർനെറ്റ് വന്നതോടുകൂടി മിക്ക ആൾക്കാരും ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ മംഗ്ലീഷിലാണ് സംസാരിക്കുന്നത് ഇവിടെ മാത്രഭാഷ മറന്ന് അതിനെ അവഗണിച്ചിട്ടാണ് ഇപ്പോൾ ഇപ്പോഴുള്ള എല്ലാ എല്ലാവരും നടക്കുന്നത് ഇൻ്റർനെറ്റിൻ്റെ ഒരു ഉപയോഗം കൊണ്ടായിരിക്കാം എന്നാണ് എനിക്കു തോന്നുന്നത് പിന്നെ എനിക്കിതിനെ പറ്റി കൂടുലായിട്ട് ഡീറ്റൈല്ഡായിട്ട് എനിക്ക് പറയാനറിയില്ല എന്നാലും ഞാൻ എൻ്റെ രീതിയിൽ ഞാൻ പറയാം മാതൃഭാഷക്ക് വളരെയധികം മാതൃഭാഷ പറയുന്ന ആൾക്കാർ വളരെ അധികം ചുരുക്കമാണ് നമ്മൾ ഇന്ത്യയിൽ നോക്കുവാണെങ്കിൽ ഇപ്പം കേരളത്തിൽ നോക്കണെങ്കിൽ കേരളത്തിൽ ഇപ്പം നോക്കണെങ്കിൽ കുറെ ആൾക്കാർ ഇപ്പം ഇംഗ്ലീഷിലും മംഗ്ലീഷിലുമാണ് സംസാരിക്കുന്നത് എഴുതുന്നതാണെങ്കിലും ടൈപ്പ് ചെയ്യുകയാണെങ്കിലും എല്ലതും എന്താണ് മംഗ്ലീഷിലക്കെയാണ് സംസാരിക്കുന്നതും മ മാതൃഭാഷ അവർ പാടെ മറന്നു പോകാണ് അവരുടെ ഇനി വരുന്ന ജനറേഷൻ അവരുടെ കുട്ടികൾ പോലും അവർക്ക് എന്താണ് ഭാഷ എന്താണ് മാതൃഭാഷ എന്നുപോലും അറിയാത്ത കുട്ടികളാണ് കാരണം അച്ഛനും അമ്മേം എങ്ങനെയാണോ സംസാരിക്കുന്നത് ആ രീതിക്കാണ് മക്കൾ വളരൽ പക്ഷേ എന്താണ് ആ രീ മക്കൾ അച്ഛനമ്മേം ഇംഗ്ലീഷ് ആണ് സംസാരിക്കുന്നുണ്ടേൽ സ്വാഭാവികമായിട്ടും മക്കളും ഇംഗ്ലീഷിലാണ് സംസാരിക്കേണ്ടത് പക്ഷേ അപ്പളും ഈ അച്ഛനും അമ്മേം പറഞ്ഞു കൊടുക്കുന്നില്ല മക്കളേ ഞമ്മൾ മാതൃഭാഷ ഇങ്ങനെയാണ് ഞമ്മള അക്ഷരങ്ങൾ ഇങ്ങനാണെന്നും മക്കൾക്കറിയാത്തതുകൊണ്ട് അവർ ഈ സോഷ്യൽ മീഡിയ വഴിയും ഇൻ്റർനെറ്റ് വഴിയും ഇമ്മാരു വഴിയുമാണ് അറിയുന്നത്